നമ്മൾ ബൈക്കാദ്യം ഓടിക്കുമ്പോൾ നമ്മുടെ സുരക്ഷയാണ് നമ്മളാദ്യം നോക്കേണ്ടത് ഇത് ഹെൽമെറ്റ് ഗ്ലൗസ് വേണമെങ്കില് ജാക്കറ്റ് ഇതൊക്കെ നമുക്ക് അതിനായിട്ട് ഉപയോഗിക്കാം ഹെല്മെറ്റെന്തായാലും വെച്ചിട്ട് വേണം ബൈക്കോടിക്കാൻ ആ കാറാണെങ്കില് കാറിന് സീറ്റ് ബെൽറ്റ് ആ സീറ്റ് ബെൽറ്റ് ഇട്ട് തന്നെ ഓടിക്കാൻ നോക്കുക പിന്നെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ടുള്ളവർക്ക് മാത്രം വണ്ടി ഓടിക്കാൻ നമ്മള് കൊടുക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കില് അത് ചെറിയ പിള്ളേർക്കൊക്കെ കൊടുത്ത് കഴിഞ്ഞാൽ അവര് കുറെ അപകടങ്ങളും കാര്യങ്ങളൊക്കെ വരുത്തി വെക്കും അമിതമായ സ്പീഡിലെക്കെ പോയി ഉം പിന്നെ പിന്നെ ലൈസൻസ് പിന്നെ ഇൻഷുറൻസ് പിന്നെ പുക പരിശോധനേക്കിൻ്റെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങള് എല്ലാം ഉള്ള വണ്ടി തന്നെ നമ്മള് ഓടിക്കാൻ നോക്കണം കാരണം നമ്മൾ നമ്മുടെ സുരക്ഷ മാത്രമല്ല പൊതുജനങ്ങളുടെ സുരക്ഷയും നമ്മൾ ഉറപ്പ് വരുത്തണമല്ലോ അല്ലാണ്ട് നമ്മള് നമ്മുടെ സുരക്ഷ മാത്രം നോക്കി വേറെ ആൾക്കാരെ ഉപദ്രവിക്കാനോ ഇതിനൊന്നും നിൽക്കാനൊന്നും പാടില്ല